ഹാലോ ഫർസാ റെസ്റ്റോറൻറ്റല്ലേ രണ്ട് മൂന്ന് നാല് ദിവസമായി ഞാൻ നിങ്ങളെ വിളിച്ചോണ്ടിരിക്കണു നിങ്ങളെന്താ ഫോണെടുക്കാത്തത് നിങ്ങളെ വെബ്സൈറ്റിൽ എൻ്റെ ഓട്ടോ പേ ഓണായി കിടക്കണുണ്ട് അപ്പോൾ നമ്മള് ഒരുപാട് പ്രാവശ്യമായി അത് ഇവിടെന്ന് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കണുണ്ട് അപ്പോൾ പറ്റുന്നില്ല അത് നിങ്ങളവിടെന്ന് ആ വെബ്സൈറ്റിൽ കറീട്ട് അതൊന്ന് ഓഫാക്കണം പിന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികൾ എപ്പോഴോ കളിച്ച് ഫോണിന്നങ്ങനെ ഡെയിലിന്നപോലെ ഫുഡ് ഓഡറായിക്കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ നമ്മളെ അക്കൗണ്ടിന്ന് പൈസ പോയോണ്ടിരിക്കിണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നില്ല കുറെ ആയി ശ്രമിക്കിണു അത് നടക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളത് വിളിച്ചോണ്ടിരിക്കുണത് എത്ര പ്രാവശ്യമായി വിളിക്കണു വിളിക്കുമ്പോൾ നിങ്ങൾ ഫോണ് എടുക്കേണ്ടത് ഫോണ് അറ്റൻഡ് ചെയ്താലല്ലേ നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഹോട്ടലിലത്തെ ഫുഡ് നമുക്ക് നല്ലതായതോണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓഡറ് തന്നോണ്ടിരിക്കണത് പക്ഷേ ഇപ്പം ചെറിയ കുട്ടികളുള്ള വീടായതുകൊണ്ട് നമ്മൾ കയ്യീന്ന് പൈസ ഇങ്ങനെ പോയോണ്ടിരിക്കുന്നു ഡെയിലി ഫുഡ് ഇവിടെ വന്നോണ്ടിരിക്കുമ്പോൾ നമുക്കത് വേസ്റ്റായി പോവാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതൊന്ന് ഓഫ് ഓഫ് ചെയ്തു തരണം